ഞാൻ ഇങ്ങനെ റിട്ടയേർഡ് ആയ ഒരാളാണ് എനിക്കപ്പോൾ അറിയേണ്ട കാര്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ റിട്ടയേർഡ് ആയതിന് ശേഷം എനിക്ക് ജോലിയിൽ പി എഫും കാര്യങ്ങളും ഒക്കെ പിടിച്ച് കഴിയുമ്പോൾ നമുക്ക് എത്ര എമൗണ്ട് വരും എന്നുള്ള കാര്യം ഒന്ന് അറിയണമായിരുന്നു പിന്നെ നമുക്കറിയേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ റിട്ടയേർഡ് ആയി കഴിഞ്ഞ ശേഷം നമുക്ക് പൈസേൻ്റെ കാര്യങ്ങളൊക്കെ എത്രയാന്നും പെൻഷൻ കിട്ടുന്ന കാര്യങ്ങളൊക്കേ ഒന്നറിയണം പെൻഷൻ എത്രയാണ് കിട്ടുന്നത് പെൻഷൻ എങ്ങനെ കിട്ടും ജോലി കഴിഞ്ഞ ശേഷം തുടർച്ചയായിട്ട് കിട്ടുമോ എത്ര വർഷം കിട്ടും പിന്നെ എത്ര പൈസയാണ് കിട്ടുന്നത് ആ കാര്യങ്ങളൊക്കെ ഒന്നറിയണം ഇത്രയും കാര്യങ്ങൾ ആണ് അറിയേണ്ടത് ഞാൻ റിട്ടയേർഡ് ആയ ഒരാളാണ് റിട്ടേഡാവുന്ന ഒരാളാണ് അപ്പം എനിക്ക് അതിനെക്കുറിച്ച് ഒക്കെ ഒന്ന് അറിയണമെന്നുണ്ട് രണ്ട് കാര്യങ്ങളാണറിയണ്ടത് ഒന്ന് ഒന്ന് പി എഫ് കാര്യങ്ങളക്കെ എത്ര വെച്ച് പിടിക്കും അത് കഴിഞ്ഞ് റിട്ടയേർഡ് ആയ ശേഷം